നിലവിലെന്റെ ആത്മീയ ഗുരുക്കൾ എന്ന് പറയണത് ശ്രീ നാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനുമാണ് ഇവരെപ്പറ്റി ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാല് ചെറുപ്പം മുതലാണ് നമ്മള് പത്രം വായിച്ചിട്ടോ അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കില് മുതിർന്നവര് മുതിർന്നവര് പറഞ്ഞ് തന്നിട്ടൊക്കെ നമ്മളറിയുമല്ലോ അങ്ങനിവരെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരെപ്പറ്റി കൂടുതൽ അറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെപ്പറ്റി ഞാൻ അറിഞ്ഞത് കൂടുതലായിട്ടറിഞ്ഞത് എന്ന് വെച്ചാല് നയൻതില് പഠിക്കുമ്പോൾ എനിക്ക് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ബുക്ക് പഠിക്കാനുണ്ടായിരുന്നു അതായത് മലയാളം വിഷയത്തോടൊപ്പം തന്നെ മലയാളം വിഷയം എന്ന് പറയണത് വേറെ ബുക്കും പിന്നെ ഇതേപോലെത്തന്നെ ഒരു സ്വാമി വിവേകാനന്ദൻ്റെ ബുക്ക് ബുക്കുണ്ടായിരുന്നു അപ്പോൾ അതില് അദ്ദേഹത്തിൻ്റെ ജനനം മുതല് മരണം വരെ ഉള്ള എല്ലാം എല്ലാ കാര്യങ്ങളും ആ ബുക്കിലുൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി കൂടുതലറിയാൻ പറ്റി അതില് ആ ബുക്കിലദ്ദേഹം ആ ബുക്കില് അദ്ദേഹം ജനിച്ചപ്പോൾ തൊട്ട് മരണം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് ഈ നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വളർന്ന് വരുന്ന തലമുറകൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുക്ക് വായിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിനോട് കൂടുതല് ബഹുമാനവും അല്ലെങ്കിൽ അദ്ദേഹത്തിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ പറ്റിയതും ഒക്കെ ചെയ്തത് പിന്നെ ശ്രീനാരായണ ഗുരുവിനെപ്പറ്റി ഞാൻ നമ്മുടെ കേരളത്തില് ജനിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി നമ്മുടെ കേരളത്തില് ഏറെക്കുറേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പിന്നെ അതേപോലെത്തന്നെ ആണ് ഞാനും അറിഞ്ഞത് പിന്നെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ അദ്ദേഹം അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ടൊരു ഗുരു ആയി ആയി മാറാൻ കാരണം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് ആണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അപ്പോൾ ഇവര് രണ്ടു പേരുമാണ് എൻ്റെ പ്രീയപ്പെട്ട ആത്മീയ ഗുരുക്കള്